ഹലോ എയർലൈനല്ലേ ആ എൻ്റെ പേര് അശ്വതി എന്നാണേ ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതായിരുന്നു എനിക്കൊരു അന്താരാഷ്ട്ര യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും രേഖകൾ എന്തെങ്കിലും കാണിക്കേണ്ടതായിട്ടുണ്ടോ ആരോഗ്യാവസ്ഥ കാണിക്കുന്ന പോലെ എന്തെങ്കിലും രേഖകൾ അതായത് വാക്സിൻ എടുത്ത രേഖകളോ അങ്ങനെ എന്തെങ്കിലും മെയിനായിട്ട് കാണിച്ചാല് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ എനിക്ക് വാക്സിൻ എടുത്ത വാക്സിനേഷൻ കോവിഡ് വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റെല്ലാം കയ്യിലുണ്ട് അതുപോലെ മറ്റെന്തെങ്കിലും അതായത് പനി വന്നതിന്റെയോ ചുമ വന്നതിന്റെയോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുടെ എന്തെങ്കിലും കാണിക്കേണ്ടതായിട്ടുണ്ടോ മെയിനായിട്ട് എന്തൊക്കെയാണു കാണിക്കേണ്ടത് എന്നൊന്നു പറയാമോ കോവിഡ് വാക്സിനേഷൻ്റെ ഉണ്ട് കോവിഡ് വാക്സിനേഷന്റേതു കയ്യിലുണ്ട് ഞാൻ എടുത്തിട്ടണ്ട് അത് വേറെയെന്തെങ്കിലും മെയിനായിട്ടെടുക്കേണ്ടതായിട്ടുണ്ടോ പിന്ന മൂന്നു മാസത്തിനിടയ്ക്ക് വന്നിട്ടില്ല വേറെ വേറെ അസുഖങ്ങളൊന്നും വേറെ അസുഖങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല പനി വന്നിട്ടുണ്ടായിരുന്നു പനി കുഴപ്പമില്ല അല്ലേ ഓക്കെ വേറെ വേറെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല കോവിഡ് നേരത്തെ വന്നതാണ് പക്ഷേ ഇപ്പോള് ഓക്കെയാണ് ഇപ്പോള് കുഴപ്പമൊന്നുമില്ല ഇല്ല ടി ബി പോലത്തെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല ഇതു മാത്രമേ ഉള്ളൂ അതു പണ്ടു വന്നതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതെ അല്ലേ ഓക്കെ വേറെ എന്താണു പറയുക ഇമിഗ്രേഷൻ ഫോമുകൾ എന്തെങ്കിലും കാണിക്കേണ്ടതായിട്ടുണ്ടോ ഉണ്ടുണ്ട് അതെടുത്തിട്ടുണ്ട് എല്ലാ ബാക്കി അത് അതല്ല അതുക്കൂട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഫോമുകളുമെല്ലാം എടുത്തിട്ടുണ്ട് അതേല്ലെ ഓക്കെ ആ ഓക്കെ താങ്ക്യൂ